ഹലോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുന്നംകുളം ബസ്സ്റ്റാൻഡിലാണ് എനിക്ക് ഇവിടെ നിന്നൊരു ഓട്ടോറിക്ഷ കിട്ടാൻ വല്ല വഴിയുമുണ്ടോ ഞാൻ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ കാണാനില്ല പഴയ ബസ്സ്റ്റാൻഡിൽ നിന്ന് വിളിച്ച് ഒരു ഓട്ടോറിക്ഷ ഇവിടെക്ക് എത്തിക്കാൻ പറ്റുമോ എനിക്ക് ഇവിടെ നിന്ന് തെക്കേപ്പുറത്തേക്കാണ് പോവേണ്ടത് അവിടെ നിന്നൊരു ബസ് കയറണം അവിടെ എൻ്റെ കുറേ ബന്ധുക്കാരുണ്ട് അവരെയൊക്കെ ഒന്ന് കാണണം എന്നിട്ട് അവിടെ നിന്ന് എനിക്ക് അഞ്ഞുരാൽത്രക്കാണ് പോവേണ്ടത് അപ്പോൾ ഒരു ഓട്ടോറിക്ഷ അവിടേക്കും അവിടെ നിന്ന് ഒരു ബസും പോകണം പിന്നെ ഇതൊക്കെ അടുത്തുള്ള ഒരാളെ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ എനിക്ക് സുഖമായിന് കാരണം പഴയ ബസ്സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷക്കാരുണ്ടെന്ന് തോന്നുന്നു അവരെ എനിക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഒരു ഓട്ടോറിക്ഷ എത്തിക്കിട്ടിയാൽ എനിക്ക് ഉപയോഗമായേനെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുന്നംകുളം പുതിയ ബസ്സ്റ്റാൻഡിലാണ് അവിടെ നിന്ന് തെക്കേപ്പുറത്തേക്ക് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് അവിടെ കയറിയാൽ പെട്ടെന്ന് എത്തണമെന്നുണ്ട് പിന്നെ അവിടടെ നിന്ന് ബസും കയറണം ഒരു കാബ് വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല ഒരു ഊബറോ ഏതായാലും കുഴപ്പമില്ല അവിടെ നിന്ന് കുറെ ടൈപ് ഓട്ടോറിക്ഷകൾ ഉണ്ടല്ലോ ഏത് ടൈപ് ആച്ചാൽ വിട്ടോ വലുതുണ്ടെങ്കിൽ അതായിക്കോട്ടെ അവരെ വിളിച്ചിട്ട് എനിക്കൊന്നു അവിടേക്ക് എത്തണം